ടാപ്പ് വെള്ളം ഞ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് പക്ഷേ ശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ ആറ്റിൽ നിന്ന് സമീപത്തെ ആറ്റിൽ നിന്നുമാണ് വെള്ളം പമ്പ് ചെയ്ത് കിട്ടുന്നത് അതത്ര വലിയ ശുദ്ധമായ ജലമൊന്നുമല്ല ക്ലോറിനേഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ ചില സമയങ്ങളിലൊക്കെ പൈപ്പ് പൊട്ടി അതിലൂടെ മലിന ജലവും ടാപ്പിലേക്ക് കയറി വരാറുണ്ട് പല സ പ്രാവശ്യങ്ങളും ഞങ്ങള് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അന്നേരം വന്ന് ശരിയാക്കി തരും പക്ഷേ കലക്കവെള്ളമാണ് നിറയെ ഉന്താണ് ഉന്ത് കൊണ്ട് പിടിച്ച് വെക്കുന്ന പാത്രം പോലും മൂന്നും നാലും ദിവസം കൂടി നമുക്ക് കഴുകേണ്ടതായൊട്ടരവസ്ഥയുണ്ടാകുന്നത് പൈപ്പ് വെള്ളമത്ര ശുദ്ധമായ ജലമൊന്നുമല്ല കുടിവെള്ളം ഞങ്ങളിപ്പ വേറെ പ്ലാൻറ്റിൽ നിന്നു പോയാണ് കുടി വെള്ളമെടുക്കുന്നത് കുടിക്കാനോ നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കോ തുണി കഴുകാനോ വെള്ള തുണി കഴുകാനോ ഒന്നും നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കില്ല വളരെയധികം ഉന്ത് ഉന്താണ് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ അത് ശുദ്ധമായ ജലവുമല്ല ആ പൈപ്പിലെപ്പഴും വെള്ളമുണ്ട് രാവിലേയും ആറരക്ക് നമുക്ക് വെള്ളം കിട്ടും ആറര തൊട്ടൊരു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് ശേഷം പിന്നെ വെള്ളവില്ല അതിന് ശേഷം പിന്നെ ഒരു നാല് മണിയാകുമ്പോഴാണ് വെള്ളം വരുന്നത് നാല് മണിക്ക് വെള്ളം കിട്ടുന്ന വെള്ളം ആറര വരെയുണ്ട് ആ നമ്മളെവിടെങ്കിലുമൊക്കെ ആ സമയങ്ങളിൽ പോകുവാണെങ്കിൽ നമുക്കന്നത്തേക്ക് ദിവസം ആ വെള്ളം സ്റ്റോറ് ചെയ്യാ സാധിക്കില്ല അല്ലങ്കില് മോട്ടറ് വഴി അടിച്ച് ടാങ്കുകളിലേക്ക് ഇടാനായിട്ട് ആരെങ്കിലുമുണ്ടെങ്കിൽ മാത്രായിരിക്കും നമുക്ക് ആ സമയം വെള്ളം ലഭിക്കുക കിട്ടുന്ന വെള്ളവാണെങ്കിലും നമ്മള് പക്ഷേ പാത്രം കഴുകാനോ കുളിക്കാനൊക്കെ മാത്രമാണ് ഉപയോഗിക്കുന്നത് തുണി കഴുകാനോ കുടിക്കാനോ ഒന്നും നമുക്ക് ആ ജലം ഉപയോഗിക്കാൻ സാധിക്കില്ല പലപ്പോഴും സാധിക്കാതെ വരുന്നു പൈപ്പ് വെള്ളം ടാപ്പ് വഴി നമുക്ക് വെള്ളം തൊട്ടടുത്ത് തന്നെ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കുന്നത് വേറൊരിടത്ത് പോയി കുളത്തിലോ ആറ്റിലോ അല്ലങ്കിൽ കിണറ്റിലോ നിന്ന് വെള്ളം കൊണ്ടു വരുന്നതിനേക്കാളും നമുക്ക് സമയ ലാഭമാണ് നമുക്ക് പൈപ്പിലൂടെ നമുക്ക് നമ്മു നമ്മുടെ തൊട്ടടുത്ത് തന്നെ വെള്ളം ലഭിക്കുക എന്നത് നമുക്ക് വളരെയധികം പ്രയോജനമുള്ള കാര്യമാണ് പക്ഷേ ലഭിക്കുന്ന വെള്ളം ശുദ്ധമാണങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളു ഞങ്ങളുടെ സമയത്തോളം മൂന്ന് മൂന്ന് നാലഞ്ച് വർഷത്തോളമായിട്ട് ലഭിക്കുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ വളരെ ഉന്ത് പിടിച്ച കലക്ക വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിൽ വണ്ടി കഴുകുന്നതിനും അല്ലങ്കിൽ തുണി കഴുകുന്നത് സാധിക്കാറില്ല വെള്ളത്തുണിയൊക്കെ കഴുകി കഴിയുമ്പഴേക്കും അത് കളറ് മാറി കുറെ ദിവസങ്ങള് കഴുകി കഴിയുമ്പം ഒരു മാതിരി ചെങ്കല്ല് കളറായി മാറും വെള്ളത്തുണികളിലൊക്കെ നമുക്കീ വെള്ളുപയോഗിച്ച് കഴുകാൻ സാധിക്കുന്നില്ല ആ ഒരു പ്രശ്നാണിപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ശുദ്ധജലം ലഭിക്കത്തക്ക രീതീയിലുള്ള ഒരു സ കാര്യം നമുക്ക് ലഭ്യമായിരുന്നെങ്കിൽ നന്നായിരുന്നു ഉന്ത് നിറഞ്ഞ വെള്ളമാണ് ആറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കുമെന്നത് മാത്രമാണ് തലേ ദിവസം പിടിച്ച് വെച്ചിട്ട് നമ്മളത് രാവിലത്തെ കഞ്ഞിക്കൊക്കെ എടുക്കുകയാണ് പതിവ് അങ്ങനെ മാത്രമാണ് അതുപയോഗിക്കാൻ സാധിക്കുകയുള്ളു ഉന്തപ്പോൾ താഴെ അടിഞ്ഞ് നമ്മള് അതരിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ശുദ്ധമായി ടാപ്പിൽ നിന്ന് നേരെ ശുദ്ധമായിട്ട് വെള്ളം ലഭിക്കാറില്ല